ആ പ്രാദേശിക പത്രത്തെ സംബന്ധിച്ചെടുത്തോളം പ്രാദേശിക പത്രം നമുക്കൊത്തിരി അറിയാൻ മേലാത്ത എന്ന് വെച്ചാൽ നമ്മളറിയാത്ത കാര്യങ്ങളെല്ലാം പത്രത്തിലൂടെയും മറ്റ് കാര്യങ്ങളിലൂടെയാണ് നമ്മളറിയുന്നത് അപ്പം ചിലപ്പം ഇപ്പുറത്ത് കിടക്കുന്ന അടുത്ത് ഉള്ള തൊട്ടടുത്ത് നടന്ന കാര്യങ്ങൾ പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത എന്നെ സംബന്ധിച്ചെടുത്തോളം ഞാനറിയണം എന്നില്ല അപ്പം ഞാൻ പത്രം കണ്ടതിലൂടെയാണ് പത്രം വായിച്ചതിലൂടെയാണ് ഞാനിതറിയാൻ പറ്റിയത് ഇപ്പം അടുത്താണല്ലോ വെള്ളം പൊങ്ങിയത് മട വീണത് ഞങ്ങൾ കൃഷിക്കാരാണ് കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ കുടുംബം നിൽക്കുന്നത് അപ്പം അടുത്തത് ചിലപ്പം ഞങ്ങടടുത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങേ ദൂരേക്ക് ഇച് കുറച്ച് എത്രയോ കിലോമീറ്ററ് ദൂരെയുള്ള പാടശേഖരത്തിലായിരിക്കാം മട വീണത് അങ്ങനെ ഞാൻ പ്രാദേശിക പത്രം വായിച്ചാണ് അതറിയാറുള്ളത് അയ്യോ അപ്പം ഇന്നടുത്താണല്ലോ മട വീണതെന്നുള്ള വെളുപ്പിനെ വെളുപ്പിനെ തന്നെ നമ്മൾ അങ്ങനറിയാൻ സാധിക്കുന്നുണ്ട് പത്രത്തിലൂടെ അതുപോലെ തന്നെ കൃഷി വെ വെ വിത തുടങ്ങിയെന്നോ അല്ലേ നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്നാണ് പറയേണ്ടത് നെല്ലിപ്പം കൃഷി കൃഷിയെ സംബന്ധിച്ചെടുത്തോളം ഈ വാർത്ത ഒത്തിരി കാര്യങ്ങൾ അറിയപ്പെടും അറിയാവല്ലോ നമുക്ക് കാർഷികത്തിൽ കാർഷികമെന്ന പേജിൽ നമുക്കറിയാൻ പറ്റും അപ്പം ഈ കൃഷിയിൽ മ് ഇപ്പം മഴക്കാലം ആയ സംബന്ധം മഴക്കാലത്തെ സംബന്ധിച്ചിടത്തോളം മട വീഴ്ച്ചാന്ന് ഉള്ളത് കൃഷിക്കാരെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ട് പരമായ കാര്യമാണ് അപ്പം ഇന്ന സ്ഥലത്ത് മട വീണെന്ന് നമുക്കറിയാൻ സാധിക്കും അതുപോലെ തന്നെ കൃഷി നശിക്കുന്നതറിയാം പറ്റും വിളവെടുപ്പ് കാലങ്ങളിൽ എത്രയോ എപ്പം കൊയ്ത്ത് കാലത്ത് വന്നാലും എപ്പോഴും മഴയും കാര്യങ്ങളുവായിരിക്കും അപ്പം കണ്ടത്തിൽ കൊടുക്കുന്ന നെല്ലുകളൊക്കെ നഷ്ടപ്പെട്ട് പോകുന്ന കൃഷിക്കാരൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമുക്കാ പത്രം വായിച്ചതിലൂടറിയാൻ പറ്റും അതുപോലെ തന്നെ ചില പേ അതുപോലെ തന്നെ ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ കിട്ടാത്ത ഇപ്പം എന്നാണ് പറയേണ്ടത് എന്തെങ്കിലും പിള്ളേർക്ക് കുട്ടികളെ സംബന്ധിച്ച് പഠിക്കനാണേലും പല കാര്യം പല പല ചില ചിത്രങ്ങൾ നമുക്ക് പത്രത്തിൽ നിന്ന് വെട്ടിയൊട്ടിക്കാനായിട്ട് ഇപ്പം നല്ല ശരിക്കും പ്രയോജനപ്പെടാറുണ്ട് അതുപോലെ തന്നെ വാർത്തകൾ വിശദമായിട്ട് നമുക്ക് ആ പത്രത്തിലൂടെ നമുക്ക് കിട്ടാറുണ്ട്